മൂവായിരത്തി ഒരുന്നൂറ്റി എണ്പത്തി എട്ട് രണ്ട് ലക്ഷത്തിപ്പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് അഞ്ഞൂറ്റി അൻപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്